ആ ആ ആ അത് കുറച്ചിവിടെ ഉണ്ടായിരുന്നില്ല കുറച്ചു പണിത്തിരക്കൊക്കെ ആയിട്ട് കണ്ണൂരായിരുന്നു കുറച്ചു ആ ആ നമ്മുക്കിപ്പോൾ വർക്ക് സൈറ്റ് കണ്ണൂരാണ് അപ്പോൾ അവിടുന്ന് അവിടെ രണ്ടു മൂന്നു വർക്കുണ്ട് അതു കഴിഞ്ഞ് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ ആ ആ ആ എവിടെ വാങ്ങിച്ചിരിക്കുന്നു ആ കോതമംഗലത്തല്ലെ കോതമംഗലത്ത് എവിടെയാണ് ആ ഗ്രാമം ഗ്രാമം സ്കൂളിൻ്റെ അവിടെയല്ലേ ആ സ്കൂളിൻ്റെ അവിടെ ആ റോഡ് റോഡ് സൈഡ് ഉള്ള അതാണോ ആ ആ ആ ആ ആ അറിയാം അറിയാം സ്ഥലമറിയാം സ്ഥലമറിയാം

പഴയ പഴയ രീതിയിലുള്ളതല്ലേ ആ ആ ആ ആ ത ആ തറവാട്ട് രീതിയിലുള്ളത് ആ ആ ആ വെട്ടുകല്ല് വെട്ടുകല്ല് ആണ് എത്രയാ എത്ര സ്ക്വയർ ഫീറ്റാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ വരി ആ വരിക്കാശ്ശേരി പോലത്തെ ചെയ്യണം അത് വലിയൊരു ബഡ്ജറ്റിലുള്ളതാണ് നമുക്ക് അതിൻ്റെ ഒരു ചെറുതായിട്ട് ഉള്ളത് ചെയ്യുവാണെങ്കിലൊരു രണ്ടായിരത്തഞ്ഞൂറു മൂവായിരം സ്ക്വയർഫീറ്റ് എങ്കിലും വേണ്ടി വരും അത്രയെങ്കിലും ഉണ്ടാവും ആ ആ ആ ആ ആ അതിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മള് മൊത്തത്തില് ചെയ്തുകൊടുക്കുന്നുണ്ട് അതോ മറ്റേ ഇത് പോളിഷ് വർക്കായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാം നമ്മളെടുക്കുന്നുണ്ട് കോൺട്രാക്ട് ആയിട്ട് എടുക്കുന്നുണ്ട് വീട് മൊത്തത്തില് ചാവി കഴിഞ്ഞിട്ട് ചാവി തരുന്ന പോലെയാണോ ആ ആ ആ ആ ആ ആ അതെ നമ്മള് ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അധികം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് അതാകുമ്പോൾ നിങ്ങൾക്കും ഒരു പ്രശ്നവുമല്ല ഇതിപ്പോൾ നിങ്ങളിപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ അപ്പം നമ്മളങ്ങനെ അധികം കൂട്ടി പറയോന്നുമില്ല ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മടെ മറ്റേ ഇവിടെ കോതമംഗലത്ത് ആ സ്കൂളിൻ്റെ അടുത്തുള്ള മറ്റേ മനോഹരേട്ടനില്ലേ അവരുടെ വീട് നമ്മൾ തന്നെയാ ചെയ്തു കൊടുത്ത് അപ്പം ആളോട് ചോദിച്ചാൽ അറിയാം

ആ അതിപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരുടെയും

അതിപ്പോൾ സാറ് എങ്ങനെയാ പറയുന്നത് വച്ചിപ്പം ഫുള്ള് മരത്തിൻ്റെ മാത്രം വെച്ച് ചെയ്യുകയാണെങ്കില് നമുക്ക് ചെയ്യാം അതുപോലിപ്പോൾ കട്ടളയും ജനലുമൊക്കെ ഇപ്പം മറ്റേ ഹോളോബ്രിക്സിൻ്റെ വെച്ച് വരുന്നുണ്ട് അതുപോല തന്നെ ഇരുമ്പിൻ്റെ വരുന്നുണ്ട് അപ്പം ഏതാ സാറിന് എങ്ങനെയാ ഉദ്ദേശിക്കുന്നതെന്നു വെച്ചാൽ അതിനനുസരിച്ചു നമ്മളോരോ ബഡ്ജറ്റാണ് ഇപ്പോൾ ഫുള്ളി ഫർണിച്ചർ ഉള്ളത് ചെയ്യണം എന്നു പറഞ്ഞാൽ കുറച്ചൂകൂടി റേറ്റ് കൂടും പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരിക്കും മറ്റേതിനെ അപേക്ഷിച്ചും ഭംഗിയായിരിക്കും അതില് തന്നെ നമുക്ക് ലോക്കൽ മരമുണ്ട് അതുപോലെ തന്നെ നല്ല മരങ്ങളില്ലേ തേക്ക് അതൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഇതാകും സാറിനെങ്ങനെയാ നോക്കിയിട്ട് ആ ആ ആ ആ ആ ആ അതിപ്പോൾ സാർ നാലുകെട്ടിൻ്റെ ഇതില് പറയണോ അങ്ങനെയാണേ നമുക്ക് വെട്ടുകല്ല് തന്നെ ചെയ്യാം ഇപ്പോൾ എല്ലായിടത്തും വെട്ടുകല്ലാ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുണ്ടെങ്കിലേ ആ നാലുകെട്ടില് ആ ഒരു ഒരു ഭംഗിയുണ്ടാവുള്ളൂ അതെ അതെ അതാണിപ്പോൾ നല്ലത് നമ്മളീ സിമൻറില് ചെയ്യാം പക്ഷെ സിമൻറില് ചെയ്താൽ ആ ഒരു ഭംഗി കിട്ടില്ല നമ്മളിപ്പോൾ ഇപ്പം എല്ലാവരും പഴയതിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുവല്ലേ അപ്പോൾ ആ ഒരു നാലുകെട്ട് ആ ഒരിതൊക്കെ കിട്ടണമെങ്കില് നമ്മള് വെട്ടുകല്ലിൽ തന്നെ ചെയ്യണം വെട്ടുകല്ലില് ചെയ്യുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും പിന്നെ തണുപ്പ് നല്ല തണുപ്പായിരിക്കും

പു പുതിയതായിട്ട് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ താഴത്തെ ഫ്ലോർ ടൈല് ഫ്ലോർ ടൈലൊക്കെ ഇല്ലേ താഴെ ഒട്ടിക്കുന്ന അതൊക്കെ നമുക്ക് വേണമെങ്കില് മറ്റേ വെട്ടുകല്ലിൻ്റെ തന്നെ ടൈലുണ്ട് അതല്ലാന്നു വെച്ചാൽ നമുക്ക് വെളിയിൽനിന്നും ഇംപോർട്ടഡായിട്ടുള്ള മറ്റേ ഗ്രാനൈറ്റോ ഏതാ സാർ സാറെങ്ങനെയാ പറയുന്നതെന്ന് നോക്കീട്ട് നമുക്കത് ചെയ്യാം ആ ആ ആ ഇപ്പോൾ സാറായതു കൊണ്ട് പിന്നെ പൈസക്കങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്കതിന് അനുസരിച്ചു നോക്കാം നമുക്കുള്ളതിൽ വെച്ച് നമുക്കിപ്പോൾ നമുക്കിപ്പോൾ ചെയ്ത പണി മോശമാണെന്നു പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഉള്ളതിൽ വെച്ചു നമുക്ക് നന്നായിട്ടു തന്നെ ചെയ്യാം ആ ആ ആ അല്ലല്ല നമ്മളിപ്പോൾ സാർക്ക് അറിയാല്ലോ ഇപ്പം നമ്മുടെ മറ്റേ സ്കൂൻ്റെ അവിടെ മനോഹരേട്ടനും പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ നമ്മളുതന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് കണ്ണൂര് വർക്കുണ്ടായിരുന്നു അതു നമ്മള് ചെയ്തു അപ്പോ സാർ അന്വേഷിച്ചു അന്വേഷിച്ചാ മതി നമ്മളിപ്പോ അങ്ങനെ മോശമായിട്ടിപ്പോ എവിടെയും ചെയ്തു കൊടുക്കുന്നില്ല ചെയ്തു കൊടുത്തിട്ടും ഇല്ല ഇതു പിന്നെ നമുക്ക് അറിയുന്ന അറിയുന്ന ആളായതുകൊണ്ട് പിന്നെ നമുക്ക് നമ്മളങ്ങനെ ആരെയും ഒന്നും പറ്റിക്കുകയോ പറ്റിക്കുകയോ ഒന്നുമില്ലല്ലോ നമ്മള് നല്ല രീതിയിൽ തന്നെ ചെയ്യാം ആ ആ ഞാൻ എന്നാൽ ഇതിപ്പോൾ ഇപ്പം എൻ്റെ കൈയിലിപ്പം ഇല്ല ഇപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ചേട്ടൻ ഇപ്പം നമുക്ക് വീട്ടിൽ പോകുവാണെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്തു തരാം ഇപ്പോൾ ഞാന് പുറത്തു പോയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ നമ്മടെ മറ്റേ സുകുമാരേട്ടൻ്റെ അച്ഛൻ മരിച്ചു അപ്പം നമ്മളവിടെ ആ അങ്ങനാണങ്കിൽ ഞാനൊന്നു വീട്ടില് പോയിട്ട് ഞാന് എൻ്റെ ഫോണ് വീട്ടിലാണേ അപ്പം ഞാനൊന്നു ഫോണ് ഫോണില് ഞാൻ അവിടുന്നെടുത്തു ഞാൻ അതിൻ്റെ രണ്ടു മൂന്ന് മാപ്പ് ഞാൻ അയച്ചു തരാം അതിൻ്റെ നോക്കിയിട്ടേ എങ്ങനെ അത് സാർക്ക് എങ്ങനെയാന്നു നോക്കിയിട്ട് അത് സെലക്ട് ചെയ്താൽ മതി അങ്ങനെ അല്ലെങ്കിൽ ഞാന് ഞായറാഴ്ച വീട്ടിലേക്ക് വരാം കുഴപ്പമില്ല ആ ആ അല്ല ഇപ്പോൾ സാറിപ്പോൾ ഇതിപ്പോൾ എപ്പോൾ തുടങ്ങാനാണ് പണി ഇപ്പോൾ എപ്പോൾ തുടങ്ങാനുള്ള ഇതാണ് ഉദ്ദേശിക്കുന്നത് ആ ആ ആ ആ അല്ല നമ്മളിപ്പോൾ ഇത് നമുക്കൊരു രണ്ടു മാസത്തിനുള്ളില് നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ ചാവി തരാൻ പറ്റും പക്ഷെ മറ്റേ ഇത് നമുക്ക് ആ രണ്ടു മാസത്തിനുള്ളില് തരാൻ പറ്റും അപ്പോൾ സാർ അഡ്വാൻസ് തരുവാണെങ്കില് നമ്മളതിന് വേണ്ടീട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതാ ഇതാക്കാം

മതി മതി മതി മതി ആ ആ ആ എന്തായാലും ഞാനിത് പോയിട്ട് വീട്ടില് പോയിട്ട് അത് ഞാനതിൻ്റെ പ്ലാന് അയച്ചു തരാം സാർക്ക് അയച്ചു തരാം ആ ആ ആ ശരി സാർ എന്നാ കാണാം ആ ശരിയേട്ടാ